ആ ആ ആശാ വർക്കറാണ് ഇനിം ഇവിടെ കൊതുക് ശല്യമോ എന്തെങ്കിലും ഉണ്ടോ വരാൻ ഇല്ല ആ പിന്നെ ആർക്കെങ്കിലും പനിയോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ എന്താ അസുഖം ആർക്കും ഇല്ലല്ലോ

അതെ ആ പിന്നെ ആരൊക്കെയുണ്ട് വീട്ടിൽ

അപ്പോൾ കൊതുക് ശല്യം വരാതിരിക്കാൻ ചുറ്റു ഭാഗം വൃത്തയാക്കിടാം പിന്നെ വെള്ളം കെട്ടി നിക്കാതിരിക്കാൻ ഇരിക്കാൻ നോക്കാം ഏഹ് പിന്നെ എന്താ ചൂടു വെള്ളം കുടിക്കുക കുടിക്കുക നല്ല പോലെ തിളപ്പിച്ച വെള്ളം കുടിക്കുക ഏഹ് അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ പിന്നപ്പം എന്താ വിറ്റാമിൻ നിങ്ങൾ ഗുളി ഗുളിക കൊണ്ടോന്നിട്ടില്ല അപ്പം ഞങ്ങളെത്തിച്ച് തരാം

വേറെന്തേലും പ്രതിവിധികൾ പറഞ്ഞാൽ ഇതന്നെ കൊതുക് ശല്യം വരാതിരിക്കുക വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക അതൊക്കെ വല്ല ചിരട്ടയോ ചെറിയ പാത്രത്തിൽ വെള്ളങ്ങളോ എന്തെങ്കിലൊക്കെ കൊണ്ടുച്ചാൽ അതൊക്കെ കമഴ്ത്തി വെക്കുക പിന്നെ എന്താ പിന്നെ കവറുകളുണ്ടാവും അതൊക്കെ എടുത്ത് മാറ്റി വെള്ളം ഇല്ലാണ്ട് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ പനീൻ്റെ ഗുളികയും കയ്യിലില്ല ഞങ്ങൾ ഗുളികയൊന്നും ഇപ്പോൾ കൊണ്ട് വന്നിട്ടില്ല